ഞങ്ങളുടെ നാട്ടിൽ ഞാനൊരു ക്രിസ്ത്യൻ ആണ് എൻ്റെ നാട്ടിൽ ഞാൻ കുഞ്ഞിലേ മുതൽ വീടിൽ പ്രാർത്ഥന കുർബാന വേദപാഠ പഠനം അങ്ങനെയുള്ള ജേം ക്രിസ്തുവിൻറെ സർവ്വ ദൈവാലയങ്ങളിലെയും സർവ്വ കാര്യങ്ങളും അറിഞ്ഞാണ് എന്നെ വളർത്തിയത് അപ്പം ആ ആചാരത്തിൽ തന്നെ ജീവിക്കാനാണ് എനിക്ക് താൽപ്പര്യവും അതുകൊണ്ട് എനിക്ക് ഇന്നുവരെ എനിക്ക് അമ്പത്തൊന്ന് വയസ്സായി ഇന്നുവരെ എനിക്ക് ദൈവത്തിൻറെ കീഴിൽ താമസിക്കുന്നതുകൊണ്ട് ഒരു ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ വിശുദ്ധരുടെയും നൊവേനകളും വണക്കങ്ങളും ആരാധനകളും എല്ലാമുണ്ട് എല്ലാത്തിലും ഞാൻ സജീവമായി കൂട്ടായ്മ ഉണ്ട് അതിലും എല്ലാം സജീവമായി പങ്കെടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ പ്രദേശത്തിനടുത്ത് അമ്പലങ്ങളും മുസ്ലിം പള്ളികളും ഒക്കെ ഉണ്ട് അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ ഇതിലുമൊക്കെ അവർ വിളിക്കുന്ന സമയത്ത് അവരുടെ കൂടെ സഹകരിക്കും പിന്നെ നല്ല ഒരൂ പാരമ്പര്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെ എല്ലാവരും എല്ലാ ദിവസവും പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും വീടുകളിൽ കുർ പ്രാർത്ഥന ചൊല്ലും ഞങ്ങളുടെ അച്ചന്മാരെ വിളിക്കും അവർ വീട്ടിൽ വന്ന് വീട് വെഞ്ചരിക്കും പ്രാർത്ഥിക്കും മക്കളെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഇറക്കിവിടും അവർക്ക് അതിൻറെ ബ്ലെസ്സിങ്ങ് ദൈവം കൊടുക്കാറുണ്ട് പിന്നെ ഓരോ ദിവസവും എന്നാ വീട്ടിൽ കുടുംബ പ്രാർത്ഥന സമയത്ത് ബൈബിൾ വായിച്ച് പരസ്പരം സ്തുതി ചൊല്ലി കല കൈ വലത്തുകൈ മുത്തുന്ന ഒരു സ്വഭാവം ഞങ്ങൾ കുഞ്ഞിലേ തൊട്ട് ശീലിച്ചതാണ് അത് ഞങ്ങൾ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെയാണ് പിന്തുടർന്ന് വരുന്നത് അങ്ങനെ തന്നെ ആ ജീവിച്ച് ജീവിക്കാൻ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും താൽപ്പര്യം മതത്തെ കുറിച്ചും മത മതപാരമ്പര്യം കുറിച്ച് പറയുമ്പോൾ ക്രിസ്ത്യാനി ക്രിസ്ത് ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും ആവിശ്യം വിശുദ്ധ കുർബാനയും ജപമാലയുമാണ് അത് ബൈബിൾ വായന ഇത് മൂന്നും അതുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ പിന്നെ ഒന്നിനും തിരിഞ്ഞു നോക്കേണ്ട കാര്യം വരില്ല അവനൊരു ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസം ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബൈബിൾ ഒന്ന് തുറന്നു നോക്കിയാൽ അവൻ എങ്ങനെ ജീവിക്കണം അവൻ എന്തായിരിക്കുന്നു ആ സമയത്ത് അവൻ എന്തായിരിക്കുന്നുവോ എന്ന് അതിൽ നിന്നും അവന് ഉറപ്പായിട്ടും വിശ്വാസത്തോടെയാണ് ഒരാൾ ബൈബിൾ എടുത്ത് വായിക്കുന്നതെങ്കിൽ അവന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവൻറെ ജീവിതം എങ്ങനെയാവും എന്ന് എത്തും എന്നുള്ളത് ദൈവം ഉറപ്പായും അതിലൂടെ സംസാരിക്കും പിന്നെ വിശുദ്ധ കുർബാന പോയി പ്രാർത്ഥിക്കുന്നത് വഴി അവന് അതിൽ നിന്നും ലഭിക്കുന്ന നന്മകൾ ഓരോ ദിവസവും ദിവ്യബലി അർപ്പിച്ച ശേഷമാണ് ഞാൻ ജോലിക്കും പോകാറുള്ളത് അവിടുന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ജീവിക്കാറുള്ളത് ഞങ്ങൾ ഒത്തിരിയേറെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് അസുഖം വന്നപ്പോഴും ഒക്കെ മരുന്നിനെക്കാട്ടിലും കൂടുതൽ ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ട് തുടങ്ങിയത് ഇന്നും ഇന്നും എനിക്ക് ജീവിച്ചിരിക്കുന്ന ദൈവം യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംസാരിച്ച് തീർക്കാനേ പറ്റില്ല അത്രയേറെ ബ്ലെസിങ്ങ് ആണ് ഈശോ എൻറേയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ ജ്വലിക്കുന്നത് ഓരോ ദിവസവും ഓരോ ആവശ്യത്തിനും ഓരോന്നിനും ദൈ ദൈവ സന്നിധിയിൽ പോയിരുന്ന് നിലവിളിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഇല്ല അത് ഇന്നും എന്നും എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നും യേശുവായിരിക്കും എൻ്റെ ജീവിത കർത്താവ് ജീവിതത്തിൻറെ നാഥൻ ജീവിതത്തിൻറെ ഉയർച്ചയുടെ എൻ്റെ എല്ലാത്തിൻറേയും ഉടയവനെ യേശുവാണെന്നുള്ള ഒരു ഇതിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് എന്നും യേശുവിനെ കുറിച്ച് പറയാൻ ഒരു ഇതും ഇല്ല യേശു എൻ്റെ ജീവിതത്തിൻറെ രക്ഷകനും നാഥനുമാണെന്ന് ഞാൻ പറയും